മനുഷ്യൻ്റെ ആരോഗ്യപരമായ ജീവിതശൈലിക്ക് കായികവിനോദം വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകങ്ങളിലൊന്നുതന്നെയാണ് കാരണം നമ്മൾ ഈ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ മാനസികമായാലും ശാരീരികമായാലും നമ്മുടെ ആരോഗ്യക്ഷമത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വിഷാദരോഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആണെങ്കിൽ കായികവിനോദം എന്തുകൊണ്ടും ഉചിതമായ ഒരു പോംവഴി തന്നെയാണ് കാരണം അയാൾക്ക് അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരണമെങ്കിൽ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കായികത്തിനോട് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ കടുപ്പവും ആഴവുമെല്ലാം കുറച്ചെടുക്കാൻ കഴിയും മാത്രവുമല്ല എന്തുകൊണ്ടും ആ വ്യക്തിയെ പഴയ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ കായികവിനോദം കൊണ്ട് സാ സാധിക്കുന്നുണ്ട് പിന്നെ ആത്മവിശ്വാസം കൂട്ടാം അതെല്ലാം ഈ കായിക വിനോദം കൊണ്ട് സാധിക്കുന്നുണ്ട് കാരണം കായിക വിനോദം നമ്മുടെ ശരീരം ശരീരം ഇളകി നടക്കുന്ന ഒരു പ്രോസസ്സ് ആണ് അപ്പോൾ എന്തുകൊണ്ടും കായിക വിനോദം എന്നുപറഞ്ഞാൽ മനസ്സിനു മാത്രമല്ല ശരീരത്തിനും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു പങ്കുവഹിക്കുന്ന ഒരു ഇതാണ് കായിക വിനോദം എന്നുപറയുന്നത് എന്തുകൊണ്ടും കായിക വിനോദം ജീവിതശൈലിക്ക് അത്യന്താപേക്ഷിതമാണെന്ന് തന്നെ പറയാം